ഹലോ മാക്സ് അല്ലേ ഓക്കെ ഞാൻ നിങ്ങളുടെ ഫോണിൽ ഇതിൻ്റെ ആപ് കണ്ടിരുന്നു അപ്പോൾ നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഞങ്ങളവിടെനിന്ന് അതിൽനിന്ന് പർച്ചെയ്സ് ചെയ്യാറുണ്ട് ഞാനെൻ്റെ ഫാമിലിയും അതിൽത്തന്നെ നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെയാണ് പർച്ചെയ്സ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നും അതിൽ ഒഫെറ് കണ്ടിരുന്നു എന്താണ് സ്മാർട്ട് വാച്ച് അതുപോലെ എലക്ട്രോണിക് ഉപകരണങ്ങളും അതുപോലെ ക്രോകെറി വേടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെന്തോ ഗിഫ്റ്റ് കൂപ്പൺ ഫുഡിൻ്റെ കൊടുക്കുന്നുണ്ടെന്ന് ഞാനതിൽ കണ്ടിരുന്നു അപ്പോൾ നമുക്കതിനെ കുറിച്ചൊന്ന് അറിയാനായിരുന്നു അപ്പോൾ എത്ര രൂപയ്ക്ക് പർച്ചെയ്സ് ചെയ്താലാണ് നമുക്ക് ഈ ഫുഡിൻ്റെ ഇത് കിട്ടുക അതായത് ഇതിന് ഗിഫ്റ്റ് എത്രയാണെന്ന് വെച്ചിട്ട് കിട്ടുക ഇപ്പോൾ നമ്മൾ ഓക്കെ ഓക്കെ ഓകെ അപ്പോൾ തൌസൻഡ് ഫൈവ് ഹൺഡ്രഡിന് നമ്മൾ പർച്ചെയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി പേർസെൻറ്റേജ് ഓഫർ ആയിട്ട് നമുക്ക് ഫുഡിന് കൂപ്പൺ കിട്ടും അത് നമുക്ക് ഏതൊക്കെ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കാം ഓക്കെ നിങ്ങളുടെ മാക്സ് ആയിട്ട് ടൈയ്യൊപ്പ് ഉള്ള എല്ലാ ടെസ്റ്റോറൻറ്റും ഉപയോഗിക്കാം ഓക്കെ ഓക്കെ അപ്പോൾ അത് നമുക്ക് എത്ര ദിവസം ഉണ്ട് അതിൻ്റെ കൂപ്പണിൻ്റെ വാലിഡിറ്റി എത്ര നാൾ പതിനഞ്ച് ദിവസം അപ്പോൾ നമുക്കെത്ര പേർക്ക് അതിൽ ഫുഡ് അതായത് ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഒരു ഫാമിലി പോവുകയാണെങ്കിൽ ആ ഫാമിലിക്ക് മൊത്തം കിട്ടുമോ അതോ പേഴ്സണലായിട്ട് ഒരു വ്യക്തിക്ക് തന്നെയാണോ അല്ലാ ഓക്കെ അപ്പോൾ ഫാമിലിക്ക് കിട്ടും അപ്പോൾ അത് ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ പർച്ചെയ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം തരികയാണോ അതോ സ്ക്രാച്ച് ആൻറ്റ് വിൻ ആണോ ഒപ്പം തരും ഒപ്പം തരും അപ്പോൾ നമ്മളതുംകൊണ്ട് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ പോയിക്കഴിഞ്ഞാൽ നമുക്കിഷ്ടം ഈ പറഞ്ഞതനുസരിച്ച് ഫുഡ് ഫിഫ്റ്റി പേർസെൻറ്റേജ് ഓഫറിൽ കഴിക്കാം അതെത്ര തരം ഫുഡോ അതായത് സ്പെഷൽ ആയിട്ട് എന്തെങ്കിലും ഫുഡോ അങ്ങനെ പ്രത്യേക ഫുഡിന് മാത്രമാണോ ഈ ഓഫറ് അതോ എല്ലാ ഫുഡിനും ഉണ്ടോ ഇല്ല എല്ലാ ഫുഡിനും ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് വന്ന് പർച്ചെയ്സ് ചെയ്താൽ ഇപ്പോൾ ഓൺലൈനിലാണ് നമ്മളിത് അപ്ലൈ ചെയ്തത് എങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ആണെങ്കിൽ ഓർഡർ സ്മാർട്ട് വാച്ചും കോക്കറിക്കും വേടിക്കുകയാണെങ്കിൽ നമുക്കിത് കിട്ടുമോ ഈ ഗിഫ്റ്റ് കിട്ടും അതിൻ്റെ ഒപ്പം കിട്ടും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കത് കൊണ്ടുപോയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിക്കാം ഓക്കെ അപ്പോൾ ഈ ഇതിൻ്റെ ഈ ടൈ ഒപ്പ് ഉള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും ഓക്കെ അതെ അതെ ഓക്കെ ഓക്കെ അപ്പോൾ താങ്ക് യു ഞാനിതൊന്ന് അറിയാനായിട്ട് വിളിച്ചതാണ് ഓക്കെ